എനിക്ക് താൽപ്പര്യം തോന്നിയിട്ടുള്ള ഒരു സമകാലിക സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മണിപ്പൂരിലെ കലാപം ഒരുപാട് ദയാനീയാവസ്ഥ തോന്നുകയാണ് കാരണം അവിടെ ഒട്ടേറെ മാസങ്ങളായി കലാപം തുടങ്ങി പക്ഷെ എന്നാലും അവിടെ എന്താ പറയുക അധികൃതർ അല്ലെങ്കിൽ സർക്കാർ അതിനെക്കുറിച്ച് ചിന്താകുലനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഒരുപാട് പേരുടെ ജീവനാണ് നഷ്ട്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും ആ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ്തി കുക്കി വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുടെയുള്ള കാലാപമാണ് കാലാപം തീർച്ചയായും ഒരു രാജ്യത്തിൻറെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ നാശം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ കാലാപത്തിലൂടെ ആർക്കും ഒന്നും നേടാൻ സാധിക്കുന്നില്ല ആ ഒരു ചെറിയൊരു സമയത്ത് തോന്നുന്നൊരു കാര്യം നമുക്ക് പിന്നീട് കാലാപത്തിലും മറ്റും അവസാനിക്കുന്നു അവസാനിക്കുമ്പോൾ നമുക്ക് അവശേഷിക്കുന്നത് നോക്കുമ്പോൾ ആരും തന്നെ ഉണ്ടാവില്ല ഒരു കലാപത്തിൻ്റെ ഏറ്റവും ഇരകളെന്ന് പറയണത് സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരുമാണ് അവർക്ക് ഒന്നും ചെയ് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല കുടുംബത്തിലായിക്കോട്ടെ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ മക്കൾക്ക് മക്കളെ നഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് അങ്ങനെ കലാപം കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സർവ്വനാശം എന്ന് തന്നെ പറയാം കലാപങ്ങളുടെ അവസാനം അത് മാത്രമാണ് സംഭവിക്കുക